ആ അതെ

ആ ആ ന് പറഞ്ഞോ ഇവിടെ മതപരമായ എല്ലാ നാനാജാതി ആൾക്കാരുണ്ട് ഹിന്ദുക്കളും മുസ്ലിംകളും ക്രിസ്ത്യാനികളും അങ്ങനെ നാ ആൾക്കാരും നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ട് എല്ലാവരും നല്ല രീതി പോകുന്നു എല്ലാ നല്ല രീതിയിലൊക്കെ ഇടപെടുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ദേശീയോത്സവം എന്ന് പറയുന്നത് ഓണമാണ്

അതെ എല്ലാവരും ആഘോഷിക്കുന്നത് ഓണമാണ് ഓണത്തിനിവിടെ പന്തുകളി വടംവലി അങ്ങനെ വ പല പല പരിപാടികളുണ്ട് കിളിത്തട്ടുകളി ഊഞ്ഞാലാട്ടം എല്ലാ പരിപാടികളുമുണ്ട് ഇവ ആ ഇവിടെ പഴയ കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരും മുണ്ടും ഷർട്ടുമാണ് ആണുങ്ങളുടെ വേഷം മുണ്ടും ഷർട്ടും പെണ്ണുങ്ങൾ സാരിയും ബ്ലൗസുമാണ് ധരിക്കുന്നത് പിന്നെ പിള്ളേർ പാവാടയും ബ്ലൗസും ഒക്കെ ധരി ധരിക്കുന്നു ഇപ്പോൾ പിന്നെ പുതിയ ഫാഷൻ ഒക്കെ വന്ന് പിള്ളേരൊക്കെ വെളിയിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരൊക്കെ ജീൻസും ബനിയനും ഒക്കെ ധരിക്കാറുണ്ട് പാൻറ്സും ഒക്കെ ധരിക്കാറുണ്ട് ആ ആ ആ അങ്ങനെ പറ്റുമല്ലോ പറ്റും ഇപ്രാവശ്യത്തെ ഓണം ഓഗസ്റ്റിലാണ്

ഓണത്തിന് വീടുകളിൽ എല്ലാവരും കൂടെ കുടുംബത്തിലുള്ളവർ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നു അതുകഴിഞ്ഞ് പള്ളിയുടെ ഗ്രൗണ്ടിലും അങ്ങനെയൊക്കെ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പരിപാടികളൊക്കെ ആ ഉണ്ട് ഓണപ്പരിപാടികൾ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട് ഞായറാഴ്ച്ചകളിൽ പ്രത്യേകമായിട്ടുണ്ട് ഭാഷ മലയാളം തന്നെയാണ് ഇവിടുത്തെ ഭാഷ മലയാളം അല്ലാതെ വേറെ ഭാഷയൊന്നും ആരും അങ്ങനെ കൂടുതൽ സംസാരിക്കാറില്ല പുറത്തുനിന്ന് വന്ന ആ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് ആ ആ ആ ഓണത്തിന് പ്രത്യേകമായ ഫുഡ്ഡുകളൊക്കെയുണ്ട് എല്ലാ കറികളൊക്കെ ഒരുപാട് വെച്ച് പായസവും അങ്ങനത്തെ ഒരുപാട് സദ്യ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കാറുണ്ട് നോൺ വെജ് ആയിരുന്നു ഇപ്പോൾ എല്ലാവരും വെജ്ജും കൂടെ കൂട്ടിയിട്ടുണ്ട് ആ ഓണത്തിന് വന്നു ശരി എന്നാൽ സമയം കറക്റ്റ് ആയോ